രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ആറ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ്